കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുറമുഖവും പിന്നെ സിറ്റിയാണ് അപ്പം ഒന്നെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകുന്നവരുണ്ട് തുറമുഖത്ത് ജോലിക്ക് പോകുന്നുണ്ട് കപ്പലിലും ബോട്ടിലോക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ ചില ചില ഷോപ്പുകള് കുറേ മാളുകളും ഷോപ്പുകളും ഒക്കെയുണ്ട് അപ്പം അവിടെ ക്ലീനിങ് സ്റ്റാഫ് അല്ലാത്ത സ്റ്റാഫ് സാധാരണക്കാർക്കും ജോലി കിട്ടുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എൻജിനീയർസ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് പിന്നെ ക അതായത് കമ്പ്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് എല്ലാ തരത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് സെയിൽസിൽ ആൾക്കാരുണ്ട് ഒത്തിരി ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ളതുകൊണ്ട് ഓരോ സെയിൽസിലും ആൾക്കാരുണ്ട് അത് ഇപ്പോൾ ഫീമെയിലും മെയിലും ഒക്കെയുണ്ട് അപ്പം അവർക്കൊക്കെ ജോലി സാധ്യതയുണ്ട് പിന്നെ നന്നായി ഫുഡ് വയ്ക്കാൻ അറിയുന്നവർക്ക് ഫുഡിനുമായിട്ട് അതായത് എങ്ങനെയായാലും ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട് ഏതു രീതിയിൽ ആണെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പം ഓരോതരത്തിലും എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് ഓരോ തൊഴിൽ രീതികൾ ഉണ്ട് അപ്പം എന്താ പറയുക അവര് ജോലി ആ ആളുകളൊക്കെ പൊതുവായിട്ടുള്ള ആളുകളൊക്കെ ഓരോ രീതിയിലുള്ള ജോലികളിൽ വ്യാപൃതരായിട്ടുള്ള ആൾക്കാരാണ്